ഹലോ ഇത് സരസ ഹോട്ടൽ അല്ലേ ഞാന് മേൽമുറിയിൽ നിന്നാണ് വിളിക്കുന്നത് ചപ്പാത്തി കോഴിക്കറിയും ഇറച്ചി വരട്ടും ഞാൻ ഒരു ഓഡ്റ് ചെയ്തീന് അത് എവിടെ എത്തി ഇപ്പൊഴും മഞ്ചേരി എത്തിയിട്ടുള്ളു ഞാന് കുറേ നേരമായല്ലോ ഓർഡർ ചെയ്തിട്ട് എന്താണ് ഇപ്പോഴും എത്താത്തത് ചപ്പാത്തിയും കോഴിക്കറിയും അങ്ങനെ ചെറിയ ഓർഡറല്ലേ ഞാൻ തന്നത് വലിയ ഓർഡർ ആണെങ്കില് അപ്പോൾ വൈകുന്നേരം വരെ എടുക്കേണ്ടി വരുമല്ലോ ഓഡ്റ് ചെയ്തപ്പോൾ ഡെലിവറി പൈസ നൂറുപ്പ്യക്കെട്ത്തിണല്ലോ അപ്പോൾ പെട്ടെന്ന് എത്തിക്കണ്ടേ കഴിയുന്നതും പെട്ടെന്ന് എത്തിക്കാന് നോക്കുക ഇനി നേരം വൈകിയാൽ ഇവിടുത്തെ വിരുന്നുകാരൊക്കെ പോകും അപ്പോൾ ഒരു പത്ത് മിനുട്ടിൻ്റെയുള്ളിലൊക്കെ വരാന് നോക്കുക ഇല്ലെങ്കിൽ ഓഡ്രർ ഒഴിവാക്കേണ്ടി വരും എനിക്ക്